ആ ആര് വിളിക്കുന്നത് ആര് വിളിക്കുന്നത് ആ അതെ ഓഫീസ് തന്നെ ഓഫീസ് തന്നെ എന്ത് വണ്ടിയുണ്ട് സ്കൂട്ടറോ കാറോ ആ ഇതിൽ ഇൻഷുർ എന്ന് പറയുമ്പം അത് ഒരു പിന്നെ വർഷത്തേക്കുള്ള ഇൻഷുർ അപ്പോൾ അത് പിന്നെ എപ്പം നിങ്ങളത് അടയ്ക്കേണ്ടത് എപ്പം അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്

അത് ഇൻഷുറൻസ് പല തരമുണ്ട് ഫുൾ ഇൻഷുർ ഉണ്ട് പിന്നെ ചില ചില അപ്പ്ഡേറ്റ് ഒഴിവാക്കിയിട്ടുള്ള ഇൻഷുർ ഉണ്ട് ഇപ്പോൾ ബമ്പർ അതും ഇതെല്ലാം ഉണ്ടല്ലോ വണ്ടിയുടെ അതിന് ചിലതിന് ഒഴിവാക്കിയിട്ടുള്ള ഇൻഷുർ രണ്ട് മൂന്ന് ടൈപ്പ് പ്ലാൻസ് ഉണ്ട് നമ്മുടെ ഇൻഷുറിൽ ഹലോ ആ നിങ്ങൾക്ക് എത്ര സാലറി ഉണ്ട് ആ ഫോർട്ടി ഫൈവ് തൗസൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഒപ്ഷന്റെ തന്നെ ചെയ്യാം അത് കുഴപ്പം ഒന്നും വരില്ല അത്ര ഒന്നും വരില്ല ഒരു വർഷത്തേക്ക് ഒരു ഫുൾ ഇൻഷുർ ആകുമ്പോൾ ഏകദേശം ഒരു പുതിയ വണ്ടിയല്ലേ ഏത് വണ്ടിയാണ് പറഞ്ഞത് നിങ്ങൾ ആ സ്വിഫ്റ്റ് അല്ലേ ഒരു പന്ത്രണ്ടായിരത്തി സംതിങ്ങ് വരും അപ്പോൾ അപ്പോൾ അത് തന്നെ ചെയ്യുന്നതല്ലേ നല്ലത് അപ്പോൾ നിങ്ങൾക്ക് നാളെ ഓഫീസിലേക്ക് വരാൻ പറ്റുമോ കുറച്ച് ഫോംസ് ഞങ്ങൾ ഒരു പത്ത് മണിക്ക് ഓഫീസ് തുറക്കും ഞാൻ ഇല്ലെങ്കിൽ ആടെ സ്റ്റാഫ് ഉണ്ട് അത് മറ്റേ പോലീസ് സ്റ്റേഷന്റെ അടുത്താണ് ഓഫീസ് നിങ്ങൾ അവിടുന്ന് വിളിച്ചാൽ മതി അപ്പോൾ ഞാൻ സ്റ്റ സ്റ്റാഫിനോട് പറയാം എന്നിട്ട് എമൗണ്ട് കൊടുക്കണം എമൗണ്ട് കൊടുത്തിട്ട് ഒരു ഫോം അവർ ഫിൽ ആക്കിക്കോളും നിങ്ങൾ സൈൻ ചെയ്താൽ മതി ആ അപ്പോൾ അത് ഫിക്സ് ചെയ്യാം അല്ലേ ഓക്കേ അല്ലെ ശരി ഓക്കേ